നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൽ മലയാള ഭാഷയ്ക്ക് ഒരുപാട് പങ്കുണ്ടെന്ന് തന്നെ പറയാം നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരുപാട് സംസ്കാര പൈതൃകങ്ങൾ ഉണ്ട് ഇപ്പോൾ ഓണം മറ്റ് വിഷു അതുപോലെത്തെ മറ്റ് ഉത്സവങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മലയാള ഭാഷ എന്നു പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു ഭാഷയാണ് അല്ലെങ്കിൽ കേരളർക്ക് കേരളീയർക്ക് മാത്രം നന്നായിട്ട് സംസാരിക്കാൻ ആവുന്ന ഒരു ഭാഷയാണ് മലയാള ഭാഷ സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റു ഭാഷകളെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും മലയാളഭാഷ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഷ ശൈദികൾ ഉദ്ധരണികളുണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് അതുപോലെതന്നെ വ്യാകരണം ഉണ്ട് വിപരീതങ്ങൾ അങ്ങനെ മലയാളഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളും മറ്റും കാര്യങ്ങളുമുണ്ട് മലയാള ഭാഷയിലൂടെ സംസാരിക്കാൻ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ആശയങ്ങൾ കൈമാറാൻ സാധിക്കുന്നത് ആശയവിനിമയം നടത്താൻ മലയാളഭാഷ ഒരുപാട് സഹായിക്കാറുണ്ട്